ഹലോ ആ പിന്നെ ശ്രേയാ ഗ്യാസിലെ ആളല്ലേ അതേ മറിയക്കുട്ടിയായിരുന്നെ വിളിക്കുന്നത് നമുക്ക് നമ്മുടെ ഗ്യാസ് തീർന്നുപോയി ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് തീർന്നത് നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു കുറ്റി കൊണ്ടുതരാമോ അങ്ങനെ തന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരുന്നു ആ എത്രയും പെട്ടെന്ന് കൊണ്ട് കൊണ്ട് തരണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് ഈയൊരു സാഹചര്യം മനസ്സിലാക്കി സഹായിക്കണം